സമൂഹത്തിലെ ജനങ്ങൾക്ക് ഡാൻസ് മ്യൂസിക് ഡ്രാമ ഫിലിം

ഗെയിംസ് മൂലം രക്ഷപ്പെട്ട എത്ര എന്തുമാത്രം ജനങ്ങളാണ് ലോകത്തുള്ളത് ഡാൻസ് മ്യൂസിക് എന്നിവ വളരെ വിനോദമായ ഒരു സായം തന്നെയാണ് ഇത് രാജ്യത്തിൻ്റെ എല്ലാ ഇടത്തും വർഷിച്ചു കിടക്കുന്നു ലോക രാജ്യങ്ങളുള്ള എല്ലാ ജനങ്ങളും മ്യൂസിക് ഡാൻസ് ഡ്രാമ ഫിലിം എന്നീ ഗെയിംസ് എന്നിവ കേട്ട് വളരെ സമാധാനം കൊള്ളുന്നുണ്ട് റേഡിയോ പണ്ടുകാലങ്ങളിൽ റേഡിയോ ആയിരുന്നു കൂടുതൽ എങ്കിലും ഇപ്പോൾ ടെലിവിഷനുകളും മറ്റും വലിയ ബിഗ് സ്ക്രീൻ ടീ വികളും വന്നു തുടങ്ങി അതിനാൽ റേഡിയോ ഒക്കെ ഓൾഡ് ജനറേഷനിലേക്കും ടെലിവിഷനെല്ലാം പുതിയ ജനറേഷനിലേക്കും എത്തിയിരിക്കുകയാണ് എനിക്ക് സ്പോർട്സ് ഗെയിംസ് എല്ലാം വളരെ ഇഷ്ടമാണ് ഗെയിമിംഗ് ഞാൻ ഫ്രീ ഫയർ കളിക്കാറുണ്ട് അത് വളരെ നല്ല ഒരു ഗെയിമാണ് ബി ജി എം എ അതും വളരെ നല്ലൊരു ഗെയിമാണ് ഗെയിംസ് എല്ലാം നല്ലതാണ് ഡാൻസ് ഐ ലൈക് ഡാൻസ് ആൻഡ് മ്യൂസിക് ഫിലിം കാണാറുണ്ട് മലയാളം ഫിലിം എല്ലാം നല്ല വളരെ ഇഷ്ടമാണ് ജനങ്ങളിൽ ഇതിനെ എല്ലാത്തിനും വളരെ പ്രാധാന്യമാണ് അവർ കൊടുക്കുന്നത് അവരെ നിത്യ ജീവിതത്തിൽ റിലാക്സ് ആവാനും സമൂഹത്തിൽ മറ്റ് ആളുകളോട് സന്തോഷമായി പെരുമാറാനും എല്ലാത്തിനും മാനസികമായൊരു ശക്തി ഡാൻസ് മ്യൂസിക് ഡ്രാമ ഫിലിം ഗെയിംസ് റേഡിയോ ആൻഡ് ടെലിവിഷൻ കോൺട്രെസ്റ്റ് എല്ലാ ഇതിൽ എല്ലാം ജീവിതം വളരെ സന്തോഷമായി പോകുന്നു